ആരാണ് സംസാരിക്കുന്നത് ആ ആ ഓക്കെ മാം ഓക്കെ ആ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അക്ഷയ്ക്ക് മാത്സിൽ ഇച്ചിരി മാർക്ക് കുറവ് ആണ്

ആ ഉളളൂ ഉള്ളൂ ആ അതെ ആൾക്ക് മാത്സ ഇച്ചിര ടഫ് ആണെന്ന് തോന്നുന്നുണ്ട് ബാക്കി ലാംഗ്വേജസും ബാക്കി സബ്ജക്റ്റ്സ് ഒക്കെ അക്ഷയ്ക്ക് കുഴപ്പമില്ല ആ പക്ഷെ മാത്സ് ഇച്ചിരി ടഫ് ആണ് ആൾക്ക് ക്ലാസ്സിൽ കുറച്ച് നമ്മൾ കുട്ടികൾ അല്ലേ കുറച്ച് ഒരു ശ്രദ്ധ ഫുൾ ടൈമ് നമ്മൾക്ക് അത്ര ശ്രദ്ധിച്ച് ഇരിക്കാൻ പറ്റുന്നില്ല എന്നാലും മാക്സിമം ആൾ ആക്റ്റീവ് ആയിട്ട് തന്നെ ഇരിക്കാറുണ്ട് ചില കുറച്ച് സമയങ്ങളിലൊക്കെ ഒരു ഇച്ചിരി ആബ്സെൻ്റ് മൈൻഡഡ് ആവാറുണ്ട്

ട്യൂഷന് അപ്പോൾ നമ്മൾ ഇപ്പോൾ കുട്ടികൾക്ക് അത് ഓവർ സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക ആണ് നല്ലത് നമ്മൾക്ക് കുട്ടിയെ ശ്രദ്ധിക്കാൻ ടൈമ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഇരുത്തി പറഞ്ഞ് കൊടുത്താൽ മതി അത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഉണ്ട് അല്ലേ ആ ആ ആ ആ അതെ അതെ ആ

ആ ആ ഓക്കെ ഓക്കെ മാം ഓക്കെ

ഓക്കെ

ആ അതെ അതെ അത് നമ്മൾ സ്പെഷ്യൽ കെയറ് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് പാരൻറ്റ്സിന് തീരെ ടൈമ് ഇല്ല എന്ന് ഉണ്ടെങ്കിൽ നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ ആൾക്ക് ട്യൂഷൻ കൊടുക്കുന്നത് കൊണ്ട് തെറ്റ് ഒന്നും ഇല്ല നമ്മൾ സ്കൂളിൽ നിന്ന് അവരെ സ്പെഷ്യൽ കെയറ് കൊടുത്തോളും നമ്മൾ ശ്രദ്ധിച്ചോളും അത് അത് വേറെ കുഴപ്പം ഒന്നും ഇല്ല ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മാം ശ്രദ്ധിച്ചോളാം ഓക്കെ